ഞാൻ ഒരു ടെക്സ്റ്റ് ബുക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റി ആണ് അതാണെങ്കിൽ അതിന്റെ ബയിൻറ്റിങ് ആണെങ്കിലും പ്രിന്റ് ആണെങ്കിലും പേപ്പേഴ്സ് ആണെങ്കിലും നല്ല ക്വാളിറ്റി ആണ് ബയിൻറ്റിങ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പെട്ടന്നൊന്നും പോവുന്നതല്ല പ്രിന്റ് ആണെങ്കിലും നമുക്ക് അതങ്ങനെ എന്താണ് നമുക്ക് പടരുന്നതോ അങ്ങനെയായിട്ടുള്ള പ്രിൻറ്റും കാര്യങ്ങളൊന്നും അല്ല ഇപ്പം മഴയൊക്കെ പെയ്താൽ ചിലപ്പോൾ നനയും അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും അങ്ങനെ ഇത് പടരുന്ന ഒരു പ്രിൻറ്റോ കാര്യങ്ങളൊന്നും അല്ല പെപ്പേഴ്സ് ആണെങ്കിലും നല്ല കട് കട്ടിയുള്ളതാണ് അത്രയ്ക്ക് വേഗം കീറിപ്പോകുന്നതോ അങ്ങനെയൊന്നും ഉള്ള പേപ്പറും കാര്യങ്ങളൊന്നും അല്ല നമുക്കാണെങ്കിൽ കുറേ നാളത് യൂസ് ചെയ്താലും നമുക്ക് ആ പെപ്പെഴ്സിനൊന്നും ഒന്നും പറ്റില്ല ബയിൻറ്റിങ്ങിനാണെങ്കിലും പ്രിന്റ് ആണെങ്കിലും ഒന്നും പറ്റില്ല മാഞ്ഞു കാ അങ്ങനെ ഒന്നും പോകത്തൊന്നും ഇല്ല നല്ല ഒരു ടെക്സ്റ്റ് ബുക്ക് ആണത് നല്ല നല്ല അതിന്റെ എടുത്തു പറയാനായിട്ട് അയിൻ്റെ ബയിൻറ്റിങ് പ്രിന്റ് പിന്നെ പേപ്പേഴ്സ് ഇത് നല്ല രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത് അത്രയ്ക്ക് നല്ല ഒരു ക്വാളിറ്റി പ്രോഡക്റ്റ് ആണത് നല്ല രീതിയിലത് നല്ലൊരു പ്രോഡക്റ്റ് ആണത്